വിവാഹങ്ങളിൽ ആളുകൾ ബന്ധുവിന് കൊടുക്കുന്ന സമ്മാനങ്ങൾ എന്ന് വച്ചാൽ കേക്കുകൾ മുറിക്കാൻ കൊടുക്കാറുണ്ട് ഫോട്ടോകൾ കൊടുക്കാറുണ്ട് ഇതൊക്കെ ഓർമ്മയിൽ നിലനിൽകുമെന്ന് അറിഞ്ഞു കൊണ്ടാണ് കൊടുക്കാറുള്ളത് ഇവയൊക്കെ സമ്മാനമായി കൊടുക്കുമ്പോൾ അവരുടെ ഓർമ്മയിൽ എപ്പോഴും നിലനിൽക്കും എന്ന് അറിഞ്ഞു കൊണ്ടാണ് പിന്നെ സ്ത്രീധനം ഒന്നും ഞാൻ കൊടുക്കുന്നത് ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല വിവാഹങ്ങളിൽ സ്ത്രീധനം കൊടുക്കുന്നത് ശിക്ഷാർഹമാണ് ഇതൊക്കെ നമ്മുടെ നാടിനെ മോശമായി ചിത്രീകരിക്കാനുള്ളതാണ് വിവാഹങ്ങൾ പങ്കെടുക്കുന്നതു തന്നെ ഒരു സമ്മാനമായിട്ടാണ് കേരളത്തിലെ സംസ്കാരത്തിൽ കാണുന്നത്